നമ്മളിപ്പോൾ ഏതൊരു മൃഗത്തിനെ വളർത്തിയാലും അതിനെ നല്ലപോലെ പരിപാലിച്ച് പരിപാലിച്ച് നോക്കുന്നതിലാണ് കാര്യം ഇപ്പം ഏതൊരു മൃഗത്തെ വളർത്തിയാലും ഇപ്പോൾ ഉദാഹരത്തിന് പശു പോത്ത് അങ്ങനെ ഉള്ളതിനെ വളർത്തുമ്പോൾ അവർക്കെല്ലാം നമ്മൾ രാവിലെ ഓക്ക കടയിൽനിന്ന് മറ്റേ വേടിച്ച് ഓക്ക വെള്ളത്തിലാക്കി ഇങ്ങനെ കൊടുക്കും അത് കഴിഞ്ഞ് അവരെ നമുക്ക് പുല്ല് നല്ല ബ്ലോക്ക് പുല്ലും ഇതൊക്കെ ചെത്തി കൊടുക്കണം പിന്നെ ചോളം കൊടുക്കും ചോളത്തിൻ്റെ ഈ തണ്ടല്ല തയ്യ് ഇത് കൊടുക്കും ആ ഇല അതൊക്കെ നല്ലൊരു ആരോഗ്യത്തിന് നല്ല മൃഗത്തിനൊക്കെ ആരോഗ്യം കിട്ടാൻ വേണ്ടി അതൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് പിന്നെ പയറുവർഗങ്ങളൊക്കെ കൊടുക്കും അത് വൈകുന്നേരം വെള്ളത്തിലൊക്കെ ചാലിച്ച് പിറ്റേദിസം ആവുമ്പത്തേക്ക് അത് കുതിരും അതാകുമ്പം നമ്മൾ കൊടുക്കും അതും നല്ല ആരോഗ്യവും ബലമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ വളരാൻ വേണ്ടിയാണ് നമ്മളത് കൊടുക്കുന്നത് പിന്നെ നല്ല പോഷകാഹാരങ്ങൾ കൊടുക്കും നല്ലപോലെ ഭക്ഷണം കഴിക്കും ഇഷ്ടം പോലെ പുല്ലുണ്ട് പുല്ല് തിന്ന് പുല്ല് തിന്നാണ് പോത്തും പശുവും ആടും എല്ലാം വളരേണ്ടത് ഇവർ പരിപാലിക്കുന്നതിലും നല്ലതാവണം നല്ലപോലെ വൃത്തിയായ അന്തരീക്ഷത്തിൽ നമ്മൾ കൊണ്ടുപോയി കെട്ടണം വൃത്തിയായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവരും നമ്മളെ സ്നേഹിക്കുകയും അതുപോലെത്തന്നെ ചെയ്യുകയും ചെയ്യും നമ്മൾ നല്ല ഭക്ഷണം കൊടുത്ത് അവരെ നമ്മളെ നല്ലപോലെ വളർത്തുകയും ചെയ്യണം പിന്നെ ഇതുപോലെത്തന്നെ ആ നല്ല ഭക്ഷണം പുല്ലൊക്കെ കൊടുക്കുക പുല്ല് കൊടുത്ത് നല്ലപോലെ ആകുമ്പം നല്ല വളർച്ച ഉണ്ടാകും അതു നല്ല ആരോഗ്യപരമായ അന്തരീക്ഷം വേണമെങ്കിൽ നല്ലപോലെ പുല്ലൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ ആണ് നമ്മൾ പരിപാലിക്കുന്നത് ഇതുപോലെത്തന്നെ വേറെ മൃഗങ്ങളാണെങ്കിൽ പട്ടി പൂച്ച അതിനെയൊക്കെ ആണെങ്കിൽ പട്ടിക്ക് നമ്മൾ ഡോഗ് ഫുഡ് അതൊക്കെ വേടിച്ചു കൊടുക്കണം എന്നാലേ അത് വളരുകയുള്ളൂ ഡോഗ് ഫുഡ്സ് ആണ് ഏറ്റവും നല്ലത് അങ്ങനെ എല്ലാ മൃഗങ്ങളും നമ്മൾ പരിപാലിക്കുന്ന പോലെ ഇരിക്കും നല്ല പോഷകാഹാരങ്ങൾ ഒക്കെ വേടിച്ച് കൊടുത്ത് നല്ല രീതിയിൽ ആരോഗ്യപരമായ ഒരു മൃഗം വളർത്തുന്നതാണ് നല്ലത്